ഓക്കേ അവിടെ പിടിയും കോഴിയും ഉണ്ടായിരുന്നോ എങ്ങനെയാണ് അത് ഡെലിവെർ ചെയ്യുന്നത് എത്ര മിനിട്ടുകൊണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിക്കാൻ പറ്റോ അരമണിക്കൂറിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ മീനങ്ങാടി ആണ്

മീനങ്ങാടി ആണ് മീനങ്ങാടി ആണ് അതെ ഒരു അര മണിക്കൂറിൽ ഉള്ള ടൈമുണ്ടാവും ഓക്കേ എന്ന വേറെ എന്തൊക്കെ ഉണ്ടവിടെ ഡിഷ് വെറൈറ്റിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ

ഓക്കേ ചിക്കൻ ലോലിപോപ്പ് ഒരു ഇത് എടുത്തോ ഒരു പ്ലേറ്റ് പിന്നെ പിടിയും കോഴിയും പിടിയും കോഴിയും സ്പൈസി ആയിട്ടുള്ള ഫിഷ് അങ്ങനെന്തെങ്കിലും ഓക്കേ കൂൾ അതായത് വളരെ തണുപ്പുള്ള എന്തെങ്കിലും ജ്യൂസും എടുത്തോളൂ അത് എന്തൊക്കെയാണുള്ളത് ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് ഏതൊക്കെയാ ഉള്ളത് ഓക്കേ അത് ചിക്കു മതി ഒരു ചിക്കു മതി അ ഇത് ചിക്കൻ വറുത്തരച്ച് വച്ചതാണോ കോഴി പിടിൻ്റെ കൂടെ ഉള്ളത് ഓക്കേ അപ്പോൾ അത് രണ്ടും ഒരു അര മണിക്കൂറിനുള്ളിൽ എത്തുംലേ ഒരു നാല് പേർക്കുള്ളത് മതി അ അപ്പം ക്യാഷ് ഓൺ ഡെലിവെറി ആണോ ഓക്കേ അപ്പോൾ നിങ്ങള് കൊണ്ടുവരുന്നത് ക്യാഷ് ഓൺ പേയ്മെൻ്റെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഡെലിവർ ചെയ്യുമ്പോൾ ക്യാഷ് കൊടുത്താൽ മതിയല്ലോ ഓക്കേ താങ്ക്യൂ